ചെറു പ്രായം മുതലേ തന്നെ വള്ളംകളി ടി വിയിൽ മാത്രമേ ഞാന് കണ്ടിട്ടുള്ളു പക്ഷെ അത് അന്ന് കാണുമ്പോൾ അതൊരു ടീം സ്പിരിറ്റായിട്ട് മാത്രമോ അല്ലെങ്കിലൊരു ഒരു വിനോദം മാത്രം എന്ന രീതിയിൽ മാ ആണ് എനിക്കത് ടി വിയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോള് ഈ അടുത്ത് പത്ത് വർഷത്തിനും ഇടയ്ക്ക് അത് എനിക്കൊരു ടി വിയിൽ കാണുന്ന മാത്രമല്ലാതെ എനിക്ക് നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം എന്നെ വിവാഹം കഴിച്ചു കൊണ്ടു വന്നിരിക്കുന്നത് പുത്തനാറിൻ്റെ തീരത്ത് ഒരു ചെറിയ ഗ്രാമത്തിലാണ് അപ്പോള് അതിനനുസരിച്ച് അതിനുള്ള എല്ലാ സാഹചര്യം സൗകര്യങ്ങളുമുള്ള പുത്തനാറ്റില് ഒരുപാട് വള്ളംകളി നടക്കാറുണ്ട് ഞങ്ങൾക്ക് ത്ത് ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി നടക്കാറുണ്ട് അതായത് ഓണത്തിനോടനുബന്ധിച്ച് നാലാം ഓണത്തിനു വർഷങ്ങൾകൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പുത്തനാറ്റില് കരുവാറ്റ വള്ളംകളി നടക്കാറുണ്ട് എന്നെ കെട്ടിച്ചുകൊണ്ടു വന്നിരിക്കുന്നത് എന്നെ കല്യാ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലം കരുവാറ്റയാണ് കരുവാറ്റ കാരമൊട്ട എന്നു പറയുന്ന പ്രദേശം ഒരു പുത്തനാറിൻ്റെ തീരത്ത് മാത്രമാ കാ പുത്തനാറിൻ്റെ തീരത്തുള്ള ഒരു പ്രദേശമാണ് ഒരു ചെറിയ ദ്വീപ് സമൂഹമാണത് ഞങ്ങൾക്ക് ഏറ്റവും ഇവിടുള്ള എല്ലാ നാട്ടുകാർക്കും ജാതിമത ഭേദമന്യേ കൊച്ചു കുട്ടികൾ മുതൽ ആബാല വൃദ്ധ ജനങ്ങൾക്കു മുഴുവനും എല്ലാവർക്കും ഒരൂ ആവേശമാണ് വള്ളംകളി എന്നുള്ളത് അതൊരു ചെറിയ വിനോദം മാത്രമെന്ന് ഉപരി എല്ലാവർക്കും അതൊരു വലിയ ആവേശമാണെ അവരെ ഓരോ നാഡീ ഞരമ്പുകളിലും ആ സമയത്തെ വള്ളംകളി കാണുമ്പോള് ഒരു വള്ളം കാണുമ്പോഴുള്ള ഒരാവേശം അത് പറഞ്ഞറിയിക്കാൻ മേലാത്തതാണ് ആ ഒരു അനുഭവം നേ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത എനിക്ക് ഈ പത്തു വർഷത്തിനിടയില് ഞാനും അതിനൊരു ആ ആ ഒരു വിനോദത്തിന് ഏറ്റവും കൂടുതലായിട്ട് അല്ലേല് ഏറ്റവും നല്ല രീതിയിൽ അതിനെ അതിനെയും ഞാനും കാത്തിരിക്കുന്ന രീതിയിൽ അതായത് ആ ഓണം വരാനായിട്ട് വരുമ്പോൾ ആ വള്ളംകളി നടന്നുകാണാനായിട്ട് ഏറെ ആഗ്രഹിക്കുകയും കാണാനാഗ്രഹിക്കുകയും ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന ഉള്ള ഒരാളായി ഞാനും മാറിയിരിക്കുന്നു ഇപ്പോള് ഈ വ ഈ വർഷവും നെഹ്റു ട്രോഫി വള്ളംകളി ഇപ്പോള് അടുത്ത ദിവസങ്ങളി തന്നെ നെഹ്റു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാനിരിക്കെ ആ വള്ളംകളിക്കു ശേഷവും നെഹ്റു ട്രോഫിക്കു ശേഷവും ഞങ്ങള്ക്കും കരുവാറ്റാ വള്ളംകളി കരുവാറ്റാ വള്ളംകളിക്കുവേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അത് നടക്കണമെന്നു തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോള് ഒരുപാട് അതിന് സാങ്കേതിക തടസങ്ങളും കാര്യങ്ങളുമുണ്ട് പല രീതിയിലുള്ള വള്ളങ്ങൾ വിരലിൽ എണ്ണിയാൽ തീരാത്തതിനും മാത്രമുള്ള വള്ളങ്ങളും ക്ലബ്ബുകളും അതിൽ പങ്കെടുക്കാറുണ്ട് കുട്ടനാട്ടുകാർക്ക് മാത്രമെന്നല്ല വള്ളംകളി പ്രേമികൾക്കെല്ലാവർക്കും ഒരുതവണ കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും ആ അതൊരു നമുക്കൊരാവേശമായി മാറുന്ന ഒരു പ്രത്യേകതരം ഒരു വിനോദമാണ് വള്ളംകളി മറ്റേതു വിനോദത്തെക്കാട്ടിലും കൂടുതൽ അതങ്ങനൊരാവേശം നമുക്ക് തരുന്നതായിട്ടാണ് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടുള്ളത് എ അതു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാത്രമല്ല ആ ദിവസം ആ ദിവസമെന്നു പറയുന്നത് ആ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം ആ വള്ളംകളി എന്ന് പറയുന്നത് നമ്മള്ക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്നും ഓർമയിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു വിനോദമാണത് ഒരുപാട് വിനോദസഞ്ചാരികൾ ആകർഷിക്കാൻ ആ ദിവസം ഞങ്ങൾക്കിവിടെ അതൊരു ഒരു നാടിനൊരുത്സവം മാത്രം ആണ് ആ കരുവാറ്റ വള്ളംകളി വരുന്ന ദിവസം ഇപ്പോൾ കുറച്ചു വർഷങ്ങൾകൊണ്ട് ഐ പി എൽ രീതീയില് സി ബി എൽ എന്ന പേരില് ടുറിസം മേഖലയിൽ കൊ കൂടുതൽ നേരത്തെ കരുവാറ്റ വള്ളം കളിയിൽ മാത്രം എന്ന രീതിയിലാണെങ്കിൽ അത് എണ്ണയാ വിരലിൽ എണ്ണാവുന്ന കുറച്ചു വള്ളങ്ങൾ മാത്രം ഇപ്പോൾ അതല്ല സി ബി എൽ രീതിയിൽ പല ഇടത്തും നടക്കുമ്പോഴും കേരളം ഒട്ടാകെ നടത്തുന്ന ഈ വള്ളംകളി അന്നത്തേക്കാളും കൂടുതൽ ഇപ്പോള് ഏറ്റവും ഊർജസ്വലമായി ഏറ്റവും ടൂറിസം മേഖലയില് നല്ല രീതിയില് ഗവൺമെൻറ്റ് അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കിത്തന്ന് ഞങ്ങൾ വള്ളംകളി പ്രേമികൾക്ക് നല്ലൊരു ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണത് ഒരുപാട് ചുണ്ടൻ വള്ളങ്ങള് അതിനുവേണ്ടി ഒരുപാട് ആൾക്കാര് അതിനു വേണ്ടിയും നമ്മള് ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ആ മാ സി ബി എൽ വള്ളംകളിക്കു വേണ്ടി മാറ്റുരയ്ക്കാനായിട്ട് ഒരുപാട് താ വള്ളങ്ങൾ അതായത് ഞങ്ങൾക്ക് കരുവാറ്റക്കാർക്കു സ്വന്തമായിട്ടു തന്നെ കരുവാറ്റ ചുണ്ടൻ ശ്രീ ഗണേശൻ പി യു പി സി കൈനഗിരി അങ്ങനെ ഒരുപാട് ഒരുപാട് വള്ളങ്ങ പറഞ്ഞാൽ തീരാത്തതിനും മാത്രം അനാരി ചെറുകനച്ചുണ്ടൻ പിന്നാ മൂക്കാട്ടിൽത്തെക്കേതിൽ അങ്ങനെ ഒരുപാട് വള്ളങ്ങള് അതിൽ മാറ്റുരയ്ക്കാന് വരാറുണ്ട്